ഹലോ ആ ഓക്കെ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ സാർ സാറിനെങ്ങനെത്തെ വണ്ടിയാണ് വേണ്ടത് ആ ഓക്കെ ആ സാറിനിപ്പോൾ നല്ല ഒരു വണ്ടിയെന്നൊക്കെ പറയുമ്പോൾ എങ്ങനത്തെ വണ്ടിയാണ് സാർ ഉദ്ദേശിക്കുന്നത്

ഓക്കെ സാറിന് മറ്റേ ജി എസ് എ അങ്ങനത്തെ വണ്ടികളോട് ഇൻ്ററസ്റ്റ് ഉണ്ടോ മറ്റേ ജി എസ് ത്രീ ടെൻ ആ ഓക്കെ ആ അതുതന്നെ ആ ജി എസിന് ആണെങ്കിൽ നമുക്കിപ്പോൾ പെർ ഡേ മൂവായിരം രൂപയാണ് സാർ പെർ ഡേ വരുന്നത്

ഓക്കെ സാറിന് എവിടെ വേണമെങ്കിലും കൊണ്ടു പോവാം പക്ഷെ നമുക്ക് പെർ ഡേ നാനൂറ് കിലോമീറ്റർ ആണ് ഇത് വരുന്നത് ആ ഏകദേശം ഒരു ദിവസം നമുക്ക് ജാ പോകാൻ പറ്റുന്ന ദൂരം നാനൂറ് കിലോമീറ്റർ ആണ് അതിൽ കൂടുതൽ സാർ മൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്തുന്ന് അഡീഷണൽ പേയ്മെൻറ് ഉണ്ടാവും

ഓക്കെ ഓക്കെ

ഓക്കെ പൾസർ ഒക്കെയാണെങ്കിൽ നമുക്കൊരു ആയിരത്തി ഇരുനൂറ് ആയിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് വരുക ആ ഒരു വൺ ഫിഫ്റ്റി സെഗ്മെൻറ് ഇല്ല കേട്ടോ വൺ ഫിഫ്റ്റി സെഗ്മെൻറ് ഇപ്പോൾ ആ ടു ഹൺഡ്രഡ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കൊരു വൺ ഫൈവ് വൺ പോയിൻറ് ഫൈവ് ഒക്കെ വരും ആയിരത്തിയഞ്ഞൂറ് രൂപ ആയിരത്തിയഞ്ഞൂറ് രൂപയ്ക്ക് വരും

ലൈസൻസ് മാത്രം മതി സാർ ആ മതി മതി

ആ വണ്ടിയുടെ പേപ്പേഴ്സ് ഒക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് ഡോക്യൂമെൻറ് ആയിട്ട് നമ്മൾ ഓ സ്പോട്ടിൽ വാട്സപ്പ് ചെയ്തു തരും ഇൽ ഇല്ലില്ലില്ല നമുക്കിപ്പോൾ വണ്ടി ഓൾറെഡി അഷ്വേർഡ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളത് എല്ലാം ചെയ്തു തരും

ഓക്കെ എന്നാൽ നാളെ സാർ വന്നോളൂ